ഹലോ ഹലോ ടു വീലർ റെൻറൽ കമ്പനി ആയിരുന്നു ആരായിരുന്നു ഒരു മാസം

സ്കൂട്ടി ആണോ വേണ്ടത് സ്കൂട്ടി മതി ഒരാൾ അല്ലേ ഉള്ളൂ വേറെ ആരും ഇല്ലല്ലോ രണ്ടുപേരുണ്ടല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ സ്കൂട്ടിക്ക് നമ്മൾ അതായത് പെർ ഡേ നമ്മൾ ചാർജ് ചെയ്യുന്നതെന്നുവെച്ചാൽ അഞ്ഞൂറ് ആണ് ഫൈവ് ഹണ്ട്രഡ് റുപീസ് ആ അഡ്ജസ്റ്റ് ചെയ്തുതരാം ഒരു നമ്മൾ ഇപ്പോൾ വൺ മന്തിലേക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ഞൂറുവെച്ചാണെങ്കിൽ പതിനയ്യായിരം രൂപ ആണ് വരുന്നത് വൺ മന്ത് പറഞ്ഞാൽ ചിലപ്പം ഫെബ്രുവരിയിൽ തന്നെയല്ലേ നിങ്ങൾ ഇപ്പം ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം അല്ലേ എടുക്കുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വിട്ടേക്ക് അപ്പം നമ്മൾ സാധാരണ നമ്മൾ ഇത്രയും ദിവസത്തേക്ക് കൊടുക്കാറില്ല അപ്പോൾ മാഡത്തിൻ്റെ ഒരു റിക്വസ്റ്റ് പ്രകാരം നമ്മൾ കൊടുക്കുന്നതാണ് കുഴപ്പമില്ല ഇല്ല കൂടുതൽ ക്യാഷ് ഒന്നും വേണ്ട നമുക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ നമുക്ക് ഒരു വിശ്വാസം ഉണ്ടല്ലോ അതാണ് അപ്പോൾ നമ്മൾ എന്താണെന്നുവെച്ചുകഴിഞ്ഞാൽ അഞ്ഞൂറുരൂപ വെച്ചിട്ടാണ് ഒരു സ്കൂട്ടിക്ക് കൊടുക്കുന്നത് റെൻറ് ഒരു ദിവസത്തേക്ക് അപ്പോൾ മൂപ്പത് ദിവസത്തേക്ക് പതിനയ്യായിരം രൂപയാണ് വരുക അപ്പോൾ ഒരു ആയിരം രൂപ നമ്മൾ കുറച്ചിട്ട് പതിനാലായിരം രൂപയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ചെയ്തുതരാൻ പറ്റും

പത്താം തീയതിക്ക് ആണ് അല്ലേ

ആ മതി മതി ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പത്താം തീയതി വിളിച്ച് ഒന്ന് ബുക്ക് ചെയ്തുകഴിഞ്ഞാൽ പത്താം തീയതി തന്നെ പോന്നോളൂ കുഴപ്പമില്ല പത്താം തീയതി വണ്ടി ഉണ്ടാകും ഏത് സ്കൂട്ടി ആണ് അങ്ങനെയൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് ഓക്കെ ഓക്കെ നല്ല സ്കൂട്ടി തന്നെ തന്നേക്കാം അത് കുഴപ്പമില്ല പിന്നെ അഡ്വാൻസ് ആയി നിങ്ങൾ ഒരു അയ്യായിരം രൂപ തരണം പിന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി അല്ല ആധാർ കാർഡിൻ്റെ ഒറിജിനൽ ഇവിടെ തരേണ്ടി വരും ആ വേറെ ഒന്നും വേണമെന്നില്ല പിന്നെ രണ്ട് ഹെൽമറ്റ് എന്തെങ്കിലും അത് അത് തിരിച്ചുതരും അത് തിരിച്ചുതരും തിരിച്ചുതരും വേണ്ട ഒരു അയ്യായിരം രൂപ നിങ്ങൾ തന്നാൽ മതി ബാക്കി നിങ്ങൾ എത്ര ദിവസം എടുക്കുന്നോ അതുകഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി കൊണ്ടുത്തന്നാൽ മതി ആ അധാർ കാർഡ് മാത്രം തന്നാൽ മതി വേറെ ഒന്നും വേണ്ട പിന്നെ ഒരു ഹെൽമറ്റ് അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഥവാ അഡീഷണൽ ഹെൽമറ്റ് വേണമെങ്കിൽ കൊടുക്കേണ്ടിവരും അതെയതെ അഡീഷണൽ ആയിട്ട് ഒരു ഹെൽമറ്റ് കൂടെ തരണമെങ്കിൽ അതിൻ്റെയും കൂടെ പേ ചെയ്യേണ്ടിവരും കാരണം നമ്മൾ എല്ലാ വണ്ടിക്കും ഓരോന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ എന്നാൽ അങ്ങനെയാണെങ്കിൽ പത്താം തീയതി പൊന്നോളൂ ആ ഓക്കെ ഓക്കെ ഓക്കെ